ഇപ്പോൾ കായിക വിനോദങ്ങള് അതായത് ഇപ്പോൾ അതിന് നമുക്കെന്തെങ്കിലും പിരിമുറുക്കങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഇണ്ടെങ്കില് നമ്മളതിനു വേണ്ട അതിന് എന്തേലും മാറ്റാനൊക്കെ ആയിട്ട് നമ്മള് നല്ല രീതിയിലുള്ള അതായത് എക്സസൈസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കില് കുറച്ചു കൂടെ നല്ലതായിരിക്കും ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മളെക്കാട്ടും നല്ല രീതീല് ഓടുന്ന ഒരാളുണ്ടെങ്കില് അപ്പോൾ അവനെ നമ്മള് തോൽപ്പിക്കാൻ വേണ്ടിട്ട് ഡെയിലി പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യുക ഇപ്പോൾ നമ്മക്ക് ഇപ്പോൾ അവരെ തോപ്പിക്കാൻ പറ്റില്ലന്നുള്ള മനസ്സിലൊരു ചിന്ത വന്നു കഴിഞ്ഞാലാണ് പ്രശ്നവും കാര്യങ്ങളൊക്കെ വരിക അപ്പോൾ നമ്മള് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് മെയ്നായിട്ട് നമ്മള് നമ്മുടെ മനസ്സിനെ തന്നെ പറഞ്ഞു പഠിപ്പിക്കുക നമുക്ക് ജയിക്കാൻ പറ്റും എന്ന് നമ്മുടെ മനസ്സിനെ തന്നെ പറഞ്ഞു പഠിപ്പിക്കുകയാണെങ്കില് നമുക്കിപ്പോ എന്തെങ്കിലും പിരിമുറുക്കങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കില് അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നെയാണ് അപ്പോൾ അങ്ങനെ ചെയ്യുവാണേ കുറച്ചും കൂടി ബെറ്ററായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ നമ്മുടെ മനസ്സിനെ മാറ്റി കഴിഞ്ഞാൽ തന്നെ നമ്മള് വിജയത്തിലേക്ക് എത്തിന്ന് വേണങ്കില് പറയാൻ പറ്റും